ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചാല് ഞാന് ആദ്യം തിരഞ്ഞെടുക്കുക ഇസ്രയേലാണ് കാരണം ഞങ്ങൾ നമ്മൾ പണ്ടുമുതലേ ഈ ബൈബിള് വായിച്ചും ഒക്കെ കേട്ടിട്ടുളതല്ലേ ഈശോ ഈശോ ജനിച്ച് വളര്ന്ന് മരിച്ചൊരു സ്ഥലം അതു കാണാൻ

അവർ അവിടെപോയി ഈശോ ജനിച്ച സ്ഥലവും ഈശോയുടെ അമ്മയുടെ അങ്ങനെ മാതാവിന്റെ സ്ഥലങ്ങളും വീടുകളും ഒക്കെ കണ്ടുയെന്നു പറയുമ്പം അവിടെ പോകണം എന്നുതന്നെയാണ് എന്റെ ആഗ്രഹം എവിടെയെങ്കിലും പോകുവാനുള്ള അവസരം ലഭിച്ചാൽ ഞാന് ആദ്യം പറയുക ഇസ്രയേലിൽ പോകണം എന്നുള്ളതാണ് അതുകൊണ്ടിപ്പം ഇഷ്ടംപോലെ തൊഴിൽ തേടി ആള്ക്കാരവിടെ പോവുന്നുണ്ട് അവരുടെ അനുഭവങ്ങളും അവിടെ അവരുടെ പോയിട്ടുള്ള ഇതെല്ലാം പറഞ്ഞു കേള്ക്കുമ്പോൾ

ഇങ്ങനെയൊരു അവസരം ലഭിക്കട്ടേ എന്നാണ് ഞാന് പ്രാര്ത്ഥിക്കുന്നത് ഇസ്രയേലിൽ പോകുവാൻ